മലയാളികളില്ലാത്ത രാജ്യങ്ങൾ ഇല്ല ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയാലും മലയാളികളുണ്ടാവും അതുപോലെ മലയാളത്തിന് ഭാഷേനെ പറ്റിയിട്ട് മറ്റുള്ള സ്ഥലത്തുള്ള ആളുകൾ പറയുന്നത് വളരെ നല്ല അഭിപ്രായമാണ് മലയാള ഭാഷ അതുപോലെ പഠിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് പലരും പറയാറുണ്ട് അതുപോലെ മലയാള ഭാഷയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ തന്നെ പല തരത്തിലാണ് സംസാരിക്കുന്നത് പല ജില്ലയിലും പല തരത്തിൽ പല സ്റ്റൈലിൽ ആണ് മലയാളം സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പലരും പലതും പറയാറുണ്ട് പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പോയിക്കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനത്തുള്ളവർ പലപ്പോഴും സംസ പറയാറുണ്ട് ചില ആൾക്കാർ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളോട് പലതും ചോദിക്ക ചോദിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഉള്ള പലതരത്തിലുള്ള കഥകളി ആയാലും അതുപോലെ ഡാൻസ് ആയാലും അതുപോലെ ഇന്ത്യയിലെ സംസ്കാരം അത് എല്ലാ എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാറും നമ്മളെ ഇതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കാറുണ്ട് പല രാജ്യങ്ങളിലും പോയിക്കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ നൃത്ത രൂപങ്ങളെ പറ്റിയിട്ടും കഥകളി കാണാൻ വേണ്ടിയിട്ടും പല പുറത്ത് രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരാറുണ്ട് അതിനെക്കുറിച്ച് പല സംശയങ്ങളായാലും കാര്യങ്ങളായാലും നമ്മളോട് ചോദിക്കാറുണ്ട് അതിനു എങ്ങനെയാണു ചെയ്യുക അത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ട് അങ്ങനെ ഇന്ത്യൻ്റെ ഏറ്റവും നല്ല ഭാഷ എന്നുള്ള രീതിയിൽ മലയാളത്തിനെ പലരും പറയാറുണ്ട്